അതായത് ഉൾനാടൻ പ്രദേശത്തെയൊക്കെ പ്രാദേശിക കാർഷിക വ്യവസായത്തെ പിന്താങ്ങാനായിട്ട് സ്ഥാപിച്ചിട്ടുള്ള സംരംഭങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് ഒരുപാട് സംരംഭങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അവരെ സഹായിക്കാനായിട്ട് അതിപ്പോൾ പൈസ ആയിട്ടാണെങ്കിലും പിന്നെ ലോണുകൾ അവർക്ക് കാർഷിക ലോണന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കുറെ ലോണുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെന്താന്ന് വെച്ചു കഴിഞ്ഞാൽ കാർഷിക ലോണന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറവായിരിക്കും വളരെ കുറവ് ആയിട്ടുള്ള ലോണായിരിക്കും കാർഷിക ലോണ് അധികമൊന്നും ഉണ്ടാവില്ല പലിശ അധികം ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ എത്ര ലോണെടുത്തിട്ടുണ്ടേലും നമുക്ക് അതൊക്കെ കർഷകർക്കൊരു ഉപകാരം തന്നെയാണ് പിന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാത് കുടുംബശ്രീ വഴിയൊക്കെ പശുക്കൾ കന്നുകാലി വിതരണങ്ങൾ പിന്നെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ കർഷകർ അതായത് കർഷകരുടെ ചന്തകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കുറെ ലാഭമൊക്കെ കിട്ടും അങ്ങനെയൊക്കെ ചെയ്യും പിന്നെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ കാര്ഷിക ഉടമ്പടി സേവനങ്ങള് കര്ഷകരുടെ ചിന്തകൾ കാര്ഷികവിനോദസഞ്ചാരപ്രവര്ത്തനങ്ങള് അങ്ങനെ ഒരുപാട് കാര്ഷികോല്പന്ന വില്പനശാലകൾ അങ്ങനെ കുറെ അവരെ അവരെ സഹായിക്കാനായിട്ട് സർക്കാരൊരുപാട് പരിപാടികളൊക്കെ നിലവിൽ കൊണ്ടുവന്നിട്ടുണ്ട്